എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗ്രഹമെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഭൂമിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗ്രഹം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കാരണം ഭൂമിയെ വെല്ലാൻ വേണ്ടിയിട്ട് മറ്റ് ഗ്രഹങ്ങൾക്ക് ഇതേവരെ കഴിഞ്ഞിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിലാണ് നമ്മുടെ ഞാൻ അടക്കം ഞാൻ ഉൾപ്പെടെ എല്ലാ ജീവജാലങ്ങളും ഭൂമിയിലാണ് ജീവിക്കുന്നത് കാരണം ഭൂമി അതിമനോഹരമായിട്ടുള്ളൊരു ഇതാണ് ഗ്രഹമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ അതായത് നമുക്കിവിടെ തന്നെ മരങ്ങൾ പക്ഷികൾ മൃഗങ്ങൾ നമ്മൾ അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാർ പല രീതിയിലുള്ള കിളികൾ ജീവികൾ എല്ലാം നമ്മുടെ ഗ്ര ഭൂമിയിലാണ് ഉള്ളത് നമ്മളിപ്പോൾ എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ അതായത് ഇപ്പോൾ ഓരോ ശാസ്ത്രജ്ഞന്മാർ പല രീതിയിലുള്ള കണ്ടുപിടിത്തങ്ങൾ കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഭൂമിയിൽ നിന്നാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചന്ദ്രനിലേക്ക് പലരും ഇത് റോക്കറ്റ് കാര്യങ്ങളൊക്കെ അവിടെ വെള്ളം ഉണ്ടോ നമുക്ക് ആൾക്കാർക്ക് മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റുമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഭൂമിയിൽ നിന്നാണ് പലരും പലരീതിയിലുള്ള റോക്കറ്റുകളും അവരവിടെ ആൾക്കാർ ഇറങ്ങുന്നതും എല്ലാ കാര്യങ്ങളൊക്കെ ഭൂമിയിൽ നിന്നാണ് നടക്കുന്നത് നമുക്ക് ഭൂമിയിൽ മാത്രമാണ് നമുക്ക് ജീവിക്കാനുള്ളൊരു സൗകര്യവും കാര്യങ്ങളൊക്കെ ഉളളൂ ഇപ്പോൾ ഭൂമിയാണ് നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് വേണമെങ്കിൽ പറയാം